ഒരു സംരംഭം തുടങ്ങുന്നതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള തുക നമ്മുടെ കൈവശം വച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുവാനായി സാധിക്കയുള്ളൂ കാരണം ഒരു സംരംഭം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ആവരുത് എന്തായാലും നഷ്ടങ്ങൾ നേരിട്ടുകൊണ്ട് മാത്രമെ ഒരു സംരംഭത്തിനെ നമുക്ക് വിജയത്തിലേക്കെത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു ഒരു സംരംഭത്തെ കൊണ്ടുവരുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് പാർട്ണർഷിപ്പിലാണ് ആ ഒരു സംരംഭം മുന്നോട്ട് പോകുന്നത് എങ്കിൽ നല്ല രീതിയിൽ തങ്ങളെ ചതിക്കാതെ കൂടെ നിൽക്കുന്ന ഒരു പങ്കാളിയെ തന്നെ തിരഞ്ഞെടുക്കുക എന്നാണ് ഏതോരു ഘട്ടം വന്നാലും വിട്ടു പോകാതെ അതിൻ്റേതായ നാശനഷ്ടങ്ങൾ ഒരുമിച്ചനുഭവിക്കുന്ന എന്നു തോന്നുന്ന അല്ലെങ്കിൽ ഒരുമിച്ചു അനുഭവിക്കാമെന്ന് പറയുന്ന അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ കൂടെ കൂട്ടുക എന്നതാണ് സംരംഭത്തിന് വിജയിക്കാവുന്ന ഏറ്റവും വലിയ ഘടകം എന്നു പറയുന്നത് ശേഷം ലാഭ നഷ്ടങ്ങളെന്താണെന്ന് മനസ്സിലാക്കി ലാഭം ഫസ്റ്റ് ആദ്യമെ നഷ്ടങ്ങൾ വരികയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ലാഭത്തിലേക്ക് പിന്നീട് ചുവട് വയ്ക്കുക എന്നാതാണ് സംരംഭം തുടങ്ങുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെത്തന്നെ ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് ഒരു സംരംഭം തുടങ്ങുമ്പോൾ പ്രതീക്ഷിക്കാത്ത അത്ര തന്നെ മൂലധനം വേണമെന്നുളളതാണ്